ഹലോ ആ സവിത ലൈബ്രറിയല്ലേ എനിക്കേ അവിടുന്ന് ഒരു പുസ്തകം ആവശ്യമുണ്ടായിരുന്നു ആടുജീവിതം എന്നു പറഞ്ഞിട്ട് അത് അവിടെ കാണുമോ ആ ഞാൻ ഇന്നവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ എന്തായാലും എത്താം ഞാൻ മെമ്പർഷിപ് ഇതുവരെ എടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ആണോ അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യണോ

ഇരുപത്തഞ്ച് രൂപയോ ആ ഓക്കെ ഞാൻ കൊണ്ടുവരാം വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് തന്നെ മെമ്പർഷിപ്പിനുള്ള എല്ലാ പേപ്പേഴ്സും എത്തിച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പുസ്തകം കിട്ടുമായിരിക്കുമോ അതോ ദിവസങ്ങൾ കഴിയുമോ ആ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്ന പുസ്തകം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് തിരിച്ച് തരണമായിരിക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നാൽ മതിയല്ലേ ആ അപ്പം എന്തെങ്കിലും കാരണവശാൽ അന്ന് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഫൈൻ വല്ലതും അടിക്കുമോ ആ ഇല്ലെങ്കിൽ ഇപ്പം പിന്നെ ഈ ഡാമേജിന് ആണെങ്കിലും അല്ലാതെയാണെങ്കിലും ഫൈൻ എത്ര രൂപയായിരിക്കും ഫൈൻ വേടിക്കുമല്ലേ ഇത് കൊടുക്കാൻ വരുമ്പോൾ മേം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും ഒരാഴ്ചയും ആയി ഇത് മേം ആണല്ലേ അഞ്ച് മണിവരെ നമുക്ക് ഇവിടുന്ന് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ വന്നിരുന്ന് വായിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടോ ആ മെമ്പർഷിപ്പ് എടുക്കാതെ വന്ന് വായിക്കാൻ പറ്റുമോ ഇല്ലല്ലേ ആ ഓക്കെ ആ എനിക്ക് എന്തായാലും ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകമാ വേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വരും അത് ആർക്കും കൊടുക്കരുതേ ആ ഇന്ന് എന്തായാലും എത്താം ഇന്ന് ഉച്ചയ്ക്ക് അഞ്ച് മണിവരെയല്ലേ ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു മൂന്നുമണിയാവുമ്പോൾ ഞാൻ എന്തായാലും എത്താം ശരി ഓക്കെ ശരി താങ്ക് യു ആ ഓക്കെ